സാറേ ഞാനേ ഓരു ഓൺലൈനിൽ ഒരു ടി വി മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സാറേ നമ്മുടെ നാ നാൽപ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ഈ കെ ഇത് ടി വിക്ക് അതെന്തായിരിക്കും സാർ വില അതുശരി അമ്പത്തിമൂന്ന് ഇഞ്ചിനോ ഫോർ കെ അതുശരി ആ അപ്പം നമുക്ക് അത് സാർ എത്രയും പെട്ടെന്ന് ഞാൻ ഓൺലൈനിലായിട്ട് വാങ്ങിക്കോളാം സാറേ ഞാനിപ്പം അതിന് അതിൻ്റെ എൻ്റെ ഫീഡ്ബാക്ക് ഞാൻ അങ്ങോട്ട് അയച്ച് തരാം താങ്ക് യു സാർ